ബൈക്കുകളില് ഏറെ താല്പര്യമുള്ള ബൈക്കെന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് ഹണ്ടറാണ് നമുക്ക് ഏറ്റവും എന്താണ് പറയുക കൂടുതലും നമ്മള് യാത്ര ചെയ്യുമ്പോള് കൂടുതല് നമുക്ക് കംഫേർട്ടും ഇതുമായിട്ട് തോന്നിയിട്ടുള്ളത് റോയൽ എൻഫീൽഡാണ് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കില് താല്പര്യമുള്ള ബൈക്ക് അതാണ് പിന്നെ പിന്നെയെന്ന് പറഞ്ഞാല് ഹീറോ ഹോണ്ട അതും കുഴപ്പമില്ലാത്തൊരു ബൈക്ക് തന്നെയാണ് പിന്നെ ഏറ്റവും വലിയ ട്രെൻഡുകള് റൂട്ടുകള് ലക്ഷ്യസ്ഥാനങ്ങള് എന്നൊക്കെ പറയുന്നത് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത് പ്രകൃതിസുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക അങ്ങനെയുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതല് നമ്മുടെ മനസ്സിനും ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിലൊരു ആ കുളിർമ്മ തരുന്നതെന്ന് പറഞ്ഞത് പ്രകൃതിസുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അതില് മെയിനായിട്ടെന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടം അതെന്ന് പറഞ്ഞാല് പ്രകൃതിസൗന്ദര്യം കൊണ്ടായാലും ജൈവവൈവിധ്യം കൊണ്ടായാലും നമുക്ക് സമ്പന്നമായിട്ടുള്ളൊരു സ്ഥലമാണ് പശ്ചിമഘട്ടമെന്ന് പറയുന്നത് പിന്നെ നമുക്ക് ശാന്തത അല്ലെങ്കില് പ്രകൃതിയിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നമ്മള് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേറ്റവും രസകരം ബൈക്കിങ് തന്നെയാണ് അത് ശരിക്കും നമുക്കൊരു മറക്കാനാകാത്തൊരു അനുഭവം തരുന്നത് തന്നെയാണ് പിന്നെ നമുക്ക് ആകെയുള്ള ഒരു പോകാൻ അത്രയും നല്ല സ്ഥലങ്ങളെന്ന് പറയുന്നത് നമുക്ക് ചാലക്കുടി ചാലക്കുടി മുതല് വാൽപ്പാറ വാൽപ്പാറ വരെ നല്ലയൊരു സ്ഥലം തന്നെയാണ് ചാലക്കുടി തൊട്ട് വാൽപ്പാറ വരെ നമ്മള് യാത്ര ചെയ്യുന്നത് പിന്നെ നമുക്ക് വരുന്നത് മൂന്നാര് മുതല് വട്ടവട വരെ അതായത് നമുക്ക് കുന്നുകള് തേയിലത്തോട്ടങ്ങള് അങ്ങനെയുള്ള ഒരുപാട് പ്രകൃതിസുന്ദരമായ കാഴ്ചകള് നമുക്ക് വട്ടവട മൂന്നാര് തൊട്ട് വട്ടവട വരെ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വനങ്ങള് തോട്ടങ്ങള് അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് വയനാട്ടിൽ നിന്ന് മസിനഗുഡിയിലേക്ക് പോകുന്ന റൂട്ടെന്ന് പറയുന്നത് നല്ലയൊരു റൂട്ട് തന്നെയാണ് പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് നിലമ്പൂര് നിലമ്പൂര് തൊട്ട് മാസിനഗുഡി വരെ അതും നല്ലയൊരു റൂട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോള് മൂന്നാര് തൊട്ട് വട്ടവടയാണെന്നുണ്ടെങ്കില് നമുക്കവിടെ കുന്നുകള് തേയിലത്തോട്ടങ്ങള് അതൊക്കെയാണ് കൂടുതല് കാണാൻ പറ്റുക പിന്നെ വയനാട് ടു മസിനഗുഡിയെന്ന് പറഞ്ഞാല് നമുക്കവിടെ വനങ്ങള് തോട്ടങ്ങള് അങ്ങനെയുള്ള സ്ഥലങ്ങള് ഇതൊക്കെയാണ് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടുകള് ലക്ഷ്യസ്ഥാനങ്ങള് എന്നൊക്കെ പറയുന്നത്